ഒറിഗാമി എന്നത് ശാസ്ത്രവും കലയുമായുള്ള സംയോജനമാണ് അതിൻ്റെ സാങ്കേതിക നിർമാണ മേഖലയിൽ പ്രത്യേകിച്ച് ദുരിതാശ്വാസ ആവാസങ്ങളിലോ കംമ്പാക്റ്റ് സ്റ്റോറേജ് സംവിധാനങ്ങളിലോ ഉപയോഗിക്കാം സമൂഹത്തിലെ ചില പ്രശ്നങ്ങൾക്ക് ശരിയായ രൂപകൽപനയും ആധുനികമായ പരിഹാരവുമാക്കാൻ ഒറിഗാമിയുടെ ആശയങ്ങൾ സഹായകമായേക്കാം

കേരളം നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഒറിഗാമി വളരുന്നത് തന്നെ